കൈ കൊണ്ടു ണ്ടാക്കിയ കാർഡ് അതായത് ക്രിസ്മസിന് അപ്പൂപ്പനെ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട് അത് ചുവപ്പ് വെള്ള കറുപ്പ് എന്നീ നിറങ്ങളിലുള്ള കടലാസുകള് വെട്ടി കഷണങ്ങളാക്കി അപ്പൂപ്പൻ്റെ മീശ താടി കണ്ണ് കയ്യ് മുഖം അങ്ങനെ ഓരോന്നും വെള്ള കടലാസ് പേപ്പറില് വെട്ടി എടുത്തു അതുപോലെ തന്നെ ചുവന്ന കടലാസിലെ അപ്പൂപ്പൻ്റെ ഉടുപ്പ് വെട്ടി എടുത്തു അങ്ങനെ ഓരോ ഭാഗങ്ങളുണ്ടാക്കിയിട്ട് അതുപോലെ തയ്യാറാക്കി കുട്ടികൾക്ക് അപ്പൂപ്പനെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ക്രിസ്മസിന് അത് വളരെ അധികം സന്തോഷായി നമ്മള് ഓരോ കഷണങ്ങളും വെട്ടിയെടുത്ത് അപ്പൂപ്പൻ്റെ കണ്ണ് അപ്പൂപ്പൻ്റെ തൊപ്പി അപ്പൂപ്പൻ്റെ മൂക്ക് മീശ താടി ഇതൊക്കെ ചേർത്ത് വിവിധ കടലാസുകൾ ചേർത്ത് അതൊട്ടിച്ച് വന്ന് അപ്പൂപ്പൻ്റെ ആ ഒരു രൂപമായി തീർന്നപ്പം നമുക്ക് മനസ്സിന് വളരെ അധികം സന്തോഷം തോന്നി അത് ഉണ്ടാക്കി കൊടുത്ത കുട്ടികൾക്കാണെങ്കിലും കുട്ടികൾക്കത് കണ്ടപ്പോൾ അതിലേറെ സന്തോഷമായിട്ട് തോന്നിയിട്ടുണ്ട് അത് ആ കുട്ടികളുടെ സന്തോഷം അപ്പുപ്പൻ അപ്പുപ്പൻ എന്ന് പറഞ്ഞ് കുട്ടികള് ചാടി കളിക്കുന്നത് കുട്ടികളുടെ ആ സന്തോഷം കാണുമ്പോൾ അതൊരു കടലാസ്സ് കഷ്ണമാണെങ്കിൽ പോലും ആ ഒരു രൂപം അതില് വന്ന് കഴിഞ്ഞപ്പോൾ കുട്ടികൾക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്രയ്ക്ക് സന്തോഷം തോന്നി അപ്പം അതിന് കടലാസ്സ് എന്നുള്ളതല്ല അതിന് നല്ലൊരു മൂല്യം ഉണ്ട് നമ്മള് ചെയ്യുന്ന ഓരോ ജോലികളും അതിൻ്റെ അവസാനത്തെ രൂപം നമുക്ക് കണ്ട് കഴിയുമ്പോൾ അതിന് നല്ല മൂല്യം ഉള്ളതായിട്ട് നമുക്ക് തോന്നാറുണ്ട്